അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറ് ഏഴ് രണ്ടായിരത്തി അഞ്ച് മൂന്ന് രണ്ട് രണ്ടായിരത്തി പതിനെട്ട് നാല് അഞ്ച് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി അഞ്ച്